എൻ്റെ ഗ്രാമത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അധികം പ്രകൃതിരമണീയമായ ഗ്രാമമാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പച്ചപ്പാണ് പത്തനംതിട്ട ജില്ലയിലെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അധികം പ്രകൃതിയോടിണങ്ങി ചേർന്നാണ് ഞാൻ സ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജി ആണ് നമുക്ക് തരുന്നത് പഠിക്കുമ്പോഴാണെങ്കിലും കളിക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിനും എല്ലാത്തിനും അവസരങ്ങളുണ്ട് തൊട്ടടുത്ത് ഞാൻ ഈ പട്ടണത്തിൽ താമസിക്കുമ്പോൾ പൊ പട്ടണത്തിൽ ഏറ്റവും വലിയൊരു കുഴപ്പം എനിക്ക് പട്ടണം ഇഷ് ഒത്തിരി പട്ടണത്തിൽ അല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പട്ടണത്തിൽ ഉള്ളതിനേക്കാളും എനിക്കിഷ്ടം ഇവിടെ താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിരമണീയത കൊണ്ട് മാത്രമാണ് നമ്മുടെ ശ്വാസത്തിന് തന്നെ വ്യത്യാസമ ഉണ്ട് അവിടെ ചെന്ന് നമ്മളൊരു പട്ടണത്തിൽ ചെന്ന് ശ്വാസം എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ ചെന്ന് ശ്വാസത്തിൻ്റെ വളരെ അധികം വ്യത്യാസമുണ്ട് അവിടുന്ന് കിട്ടുന്നൊരു ശ്വാസത്തിൻ്റെ പ്രത്യേകത വളരെ വളരെ വ്യത്യസ്തമാണ് ആ തണുപ്പ് കാറ്റ് ഒന്ന് ഈ ആ ഒരു തണുപ്പ് കാറ്റ് ഒരിക്കലും ഒരിക്കലും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടില്ല നമുക്ക് ആ വ്യത്യാസം വളരെ വളരെ അധികം തിരിച്ചറിയാൻ സാധിക്കും പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രാമം ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ അധികം തണുപ്പാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ വളരെ വളരെ ചൂടേറിയ ഭാഗങ്ങളാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ഇതിനെല്ലാം കാരണം വന നശീകരണമാണ് വനമെല്ലാം നശീകരിച്ച ടൗണുകളാക്കി ബിൽഡിംഗുകളാക്കി പണിയുന്നതുകൊണ്ട് തന്നെ വളരെ ചൂട് വളരെ ചൂട് അനുഭവപ്പെടുകയും അതുപോലെ നമ്മൾ എല്ലാവരും പറയും അറിയാവുന്നത് പോലെ തന്നെ ഇപ്പം ഗ്ലോബൽ വാർമിംഗിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഗ്രാമ ഗ്രാമത്തിലാ പ്രദേശമാണെങ്കിൽ വളരെ അധികം പച്ചപ്പും വളരെ അധികം ഹരി ഹരിതാഭയും അതുപോലെ തന്നെ വളരെ അധികം എന്നാ സ്നേഹം ഉള്ള ആൾക്കാരും എല്ലാവരും തമ്മിൽ വളരെ അധികം ബന്ധം ഉണ്ട് അതും അത് വളരെ അധികം ഇമ്പോർട്ടൻറ് ആയിട്ടൊരു കാര്യമാണ് ഒരിക്കലും പട്ടണത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇത്രത്തോളം ബന്ധങ്ങൾ ആ നമുക്ക് തൊട്ടടുത്ത വീട്ടിലിവിടെ എന്തൊരു സഹായത്തിനും ആർക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിക്കുവേം ചെയ്യാം അതെനിക്ക് അത് അതാണ് എനിക്ക് ഏറ്റവും ഈ വളരെ അധികം ഇഷ്ടം ഉള്ള കാര്യം മനുഷ്യൻ എന്ന് പറയുന്നതൊരു ഹ്യൂമൻ ആ ഒരു ഹ്യൂമൻ ബീയിംഗ് പറയുന്നൊരു സോഷ്യൽ ബീയിംഗ് ആണ് സാമൂഹികമായിട്ടുള്ള സമൂഹത്തുള്ള എല്ലാവരുമായിട്ട് ഇടപഴകി ജീവിക്കേണ്ടതാണ് ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവ എൻ്റെ തൊട്ടടുത്തുതന്നെ ഒ അനവധി അനവധി വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ എപ്പോഴും നല്ല സ്നേഹവും ഐക്യവും സന്തോഷവും അതും അല്ലാണ്ട് ഏതൊരു സഹായം ആവശ്യം വന്നാലും തൊട്ടടുത്ത് തന്നെ ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് വളരെ അധികം വ്യത്യാസം തോന്നുന്നത് വെള്ളം വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല വെള്ളത്തിന് നല്ല പ്യൂർ ആയിട്ടുള്ള നല്ല ക്ലീൻ ആണ് നല്ല പരിശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ സാ കുടിക്കാൻ സാധിക്കും കുടിക്കാനും അതെ കുളിക്കാനും അതെ നമുക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടുന്നുണ്ട് വെള്ളം ചീത്തയായതിനാലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി കുറവുള്ളത് തന്നെയായിരുന്നു വളരെ അധികം കുടിക്കുമ്പോഴാണെങ്കിലും രോഗങ്ങൾ ഏർപ്പെടും അതേ സമയത്ത് ഞാൻ താമസിക്കുന്നതൊരു ഗ്രാമ പ്രദേശം ആണ് ഗ്രാമ പ്രദേശം വെള്ളം വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസുഖങ്ങളും ഉണ്ടാകില്ല ഒരിക്കലും ഒരു അസുഖങ്ങളും ഉണ്ടാകില്ല പിന്നെ നമ്മൾ തന്നെ നട്ട് വളർത്തുന്ന പച്ച ചെറിയ ആ പച്ച ആ കറികൾ നമുക്ക് ഒരു വിഷാംശമോ ഒരു പ്രശ്നങ്ങളോ ഒരു ഭയമോ ഒരു പേടിയോ ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും ഏതൊരു ആ തരത്തിലുള്ള സംഭവങ്ങളായിക്കോട്ടെ നമുക്ക് വളരെ അധികം പേടി ഇല്ലാണ്ട് കഴിക്കാൻ സാധിക്കും നമുക്ക് പുറത്തുനിന്ന് വാങ്ങുവാണ് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് വാങ്ങുന്നത് പല പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസ് പല കെമിക്കൽ ആയിട്ടുള്ള ഫെസ് ഫെർട്ടിലൈസ് അതോടെതന്നെ നമ്മളെ മനുഷ്യ ജീവിതത്തിന് വളരെ അധികം ഹാനികരമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസ് ഗ്യാസും എല്ലാം ഉപയോഗിച്ചുള്ള ആണ് നമുക്ക് ഓരോ ആ പച്ചക്കറികൾ തരുന്നത് അതേ സമയത്ത് എൻ്റെ സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ തന്നെ നട്ട് വളർത്തിയ പച്ചക്കറിയാണ് നമ്മൾ കളിക്കുന്നത് കഴിക്കുന്നത് നമുക്ക് എത്ര സന്തോഷത്തോട് വേണമെങ്കിൽ അത്ര ആത്മവിശ്വാസത്തോട് വേണമെങ്കിൽ വേണമെങ്കിലും നമുക്കത് കഴിക്കാൻ സാധിക്കും അതാണ് എനിക്ക് ഏറ്റവും വലുത് വേറെ ഏറ്റവും വലിയ നല്ല കാര്യമായിട്ട് തോന്നിയത് പിന്നെ മൃഗങ്ങൾ ജാതികൾ കോഴി പശു ആട് പോത്ത് എരുമ എല്ലാം എല്ലാത്തിൻ്റെയുമായിട്ടൊരു എല്ലാവരും എല്ലാത്തിനും നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കണം അതൊക്കെ നമ്മളെ പഠിപ്പിക്കുക അറിയാമെങ്കിൽ എൻ്റെ ഗ്രാ സത്യമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ നിൽക്കണമെന്നാണ് നമ്മൾ നമ്മളെ മാത്രമേ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ അത് നമ്മുടെ വീട്ടിൽ ഓരോരോ ജീവികളും വേണം എങ്കിൽ മാത്രമേ നമുക്ക് അവരിലൂടെ സന്തോഷം ആവുവേം അവർ അവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അതും ഒരു ലൈവ്ലിഹുഡ് ആണ് ഓക്കെ നമക്ക് ഗ്രാമ പ്രദേശങ്ങളിൽ മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ ആട് പശു എല്ലാത്തിനും ഓരോ ജീവിത മാർഗമായിട്ടാണ് കാണുക അതുപോലെ തന്നെ അവറ്റകളുടേതായ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവറ്റകളെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ട് ഇതൊക്കെ വളരെ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രാമം എനിക്ക് വളരെ ഇഷ്ടമാണ്